ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകത ഉള്ളതും വൈവിധ്യമാർന്ന ദിനാന്തരീക്ഷവും ആയതിനാൽ ഇന്ത്യക്ക് പൊതുവായൊരു കാലാവസ്ഥ ഉള്ളതായി പറയാൻ കഴിയില്ല പിന്നെ ജനുവരി ഫെബ്രുവരി എന്നീ മാസങ്ങളില് ശീതകാലവും മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിൽ മഴക്കാലവും അല്ലെങ്കിൽ മൺസൂൺ കാലവുമായിട്ടാണ് ഇന്ത്യൻ കാലാവസ്ഥ കാണാറുള്ളത് അതുപോലെ അന്തരീക്ഷത്തിലുണ്ടായ പലവിധ മാറ്റങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥയും വ്യത്യാസം വന്നു തുടങ്ങുന്നതായി കാണപ്പെടുന്നു കടലിനടിയിൽ രൂപപ്പെടുന്ന ന്യൂന മർദ്ദം കര തൊടുമ്പോൾ വലിയ ശക്തി പ്രാപിക്കുകയും അത് പേമാരിപ്രളയത്തിനും വളരെ സാഹചര്യമുണ്ടാക്കുന്ന ഒന്നായി മാറുന്നത് നമ്മൾ അടുത്തിടെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ കാലാവസ്ഥ ഉള്ളതായി കാണാം എന്നാൽ അതുപോലെ പൊതുവായ ഇന്ത്യൻ കാലാവസ്ഥയെ ട്രോപ്പിക്കൽ മൺസൂണായിട്ടാണ് ക്ലാസ്സിഫൈ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇന്ത്യയുടെ കാലാവസ്ഥ വൈവിധ്യമാർന്ന് കൊണ്ടിരിക്കുകയാണ് കാരണമാകുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ മൺസൂണിൻ്റെയും സീസണൽ വ്യത്യാസത്തിൻ്റെയും പ്രത്യേകത കൊണ്ടാണ് അതുപോലെ അതിശക്തമായ ചൂട് മുതൽ കഠിനമായ തണുത്ത കാലാവസ്ഥ വരെ പോകുന്നു കാലാവസ്ഥ വ്യതിയാനം ഇന്ത്യയിൽ കാണപ്പെടുന്ന ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലാവസ്ഥ കാലത്താണ് പിന്നെ ശക്തമായ മഴയാണ് ഇത് പ്രളയത്തിനും മറ്റു ദുരന്തങ്ങൾക്കും കാരണമാകുന്നത് എന്നിരുന്നാലും ഇന്ത്യൻ കാലാവസ്ഥ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും മായിട്ട് തന്നെയാണ് പറയാൻ കഴിയുന്നത്